തൊണ്ടവേദന ഭേദമാക്കാൻ എൻ്റെ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ള ചില നാട്ടു വൈദ്യങ്ങളാണ് ചിരട്ട കത്തിച്ചു ആ കരി നേരെ പച്ച വെള്ളത്തിലേക്ക് ഇടുകയും അതിനകത്തേക്ക് കുറച്ചു ഉപ്പിട്ട് ഇളക്കുകയും ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വയ്ക്കുന്ന അരി എടുത്തു അത് അരി വറുത്തു എണ്ണയോ എണ്ണയും മറ്റും ഒഴിക്കാതെ ജലാംശമില്ലാത്ത ഒരു പാത്രം ചൂടാക്കി അതിൽ നന്നായി പാത്രം ചൂടാകുമ്പോൾ അരിയിട്ട് അരി നല്ലോണം പൊട്ടി തുടങ്ങുന്ന രീതിയിൽ അരി നന്നായി വറുത്ത ശേഷം മറ്റൊരു ഗ്യാസിൽ അല്ലെങ്കിൽ മറ്റൊരു അടുപ്പിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വച്ചു ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ആ ചായ ചായ അഥവാ കാപ്പിയോ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഈ വറുത്തു വച്ചിരിക്കുന്ന അരി ഇടുകയും അതുപോലെ തന്നെ ചൂടോടെ ഊതി മുഴുവനായിട്ട് കഴിക്കുന്നതിലൂടെ തൊണ്ടവേദന മാറ്റാൻ സാധിക്കുന്നു എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള രണ്ട് രീതി എന്ന് പറയുന്നത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഉപ്പും അതുപോലെ ഉള്ളിയും മറ്റും അരച്ചു തൊണ്ടയുടെ ചുറ്റും ഇടുന്നത് ത് അതുപോലെ എന്താണ് ബാം മറ്റും പുരട്ടുന്നതിലൂടെയും തൊണ്ടവേദന മാറാൻ സാധിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ മറ്റ് എറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ചുക്ക് കാപ്പി എന്ന് പറയുന്നത് തൊണ്ടവേദനക്ക് ഏറ്റവും നല്ലതായിട്ട് അതായത് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എന്താണ് ചുക്ക് ഉണക്കി പൊടിച്ചതും അതുപോലെ തന്നെ കാപ്പിപ്പൊടി ജീരകം ഉലുവ പനിക്കൂർക്ക ഇല പിന്നീട് വറ്റൽമുളക് ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ചതച്ചത് തുളസി ഇല എന്നിവ എല്ലാം നന്നായി തിളപ്പിച്ചു തിളച്ചു വരുമ്പോൾ കാപ്പിപ്പൊടിയും മധുരത്തിനായി കുറച്ചു കരിപ്പെട്ടിയോ അല്ലെങ്കിൽ ശർക്കരയും ചേർത്ത് ഇളക്കി അത് മൂന്ന് തവണ എങ്കിലും ഒരു ദിവസം സേവിക്കുക ആണെങ്കിൽ തൊണ്ടവേദന പെട്ടെന്ന് മാറി കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കും